നമ്മളുടെ ഗ്രാമത്തിൽ വിവാഹങ്ങൾ നടക്കുന്നത് ചെക്കൻ്റെ വീട്ടിലെ കാർണവന്മാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആദ്യം കുറച്ച് പേര് ചെല്ലും എന്നിട്ട് അവരോട് അന്വേഷിക്കും പെണ്ണിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് ചോദിച്ചറിയും ചെക്കൻ്റെ വീട്ടുകാർ ചെക്കൻ്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുക്കും അങ്ങനെ അവർക്ക് രണ്ട് കൂട്ടർക്കും ഇഷ്ടം ആണെങ്കിൽ മാത്രമാണ് വിവാഹം നടക്കുക അപ്പം ആദ്യം ചെക്കൻ്റെ വീട്ടിലെ കാർണവന്മാരാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിവാഹം അന്വേഷിച്ച് ചെല്ലാറ് എന്നിട്ട് പിന്നെ അവർക്ക് സമ്മതം ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രം അവിടെന്ന് കുറച്ച് ആൾക്കാർ ചെക്കൻ്റെ വീട് കാണാനും ചെക്കൻ്റെ ചുറ്റുപാടും സ്വഭാവം ജോലി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് അവർക്ക് രണ്ട് പേർക്കും ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വിവാഹം നടക്കുന്നത് അപ്പോൾ ഈ രണ്ട് വീടും കണ്ട് കഴിഞ്ഞ് ചെക്കനെ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തതായിട്ട് നിശ്ചയമാണ് തീരുമാനിക്കുന്നത് ഈ ഒരു നല്ലൊരു മുഹൂർത്തം ദിവസം നോകിഴിട്ട് ഒരു നിശ്ചയം തീരുമാനിക്കുക ആണെന്നുണ്ടെങ്കിൽ അന്നാണ് നമ്മൾ മോതിരം പരസ്പരം മാറുന്നതും വിവാഹത്തിലേക്ക് നമ്മൾ നല്ലൊരു ഡേറ്റ് കണ്ട് വെക്കുന്നതും